ഞാൻ വാങ്ങിയത് ഒരു ലാപ് ആയിരുന്നു സെക്കൻഡ് ലാപ് ആയിരുന്നു വാങ്ങിയത് വിചാരിച്ച അത്ര പോലെ അതിൻറെ ക്ലിയറും ഇതൊന്നും ഇല്ല സ്ക്രീനിനുള്ള ലൈറ്റ് ഞാനതില് കണ്ട പരസ്യത്തിൽ കുറച്ചൂ കൂടിയും എന്ത പറയുക എൽ ഇ ഡി ലൈറ്റൊക്കെ പോലെയാണ് കണ്ടത് വന്നപ്പോൾ എനിക്കത്രക്കങ്ങ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആവശ്യത്തിനനുസരിച്ചാണ് അത്യാവശ്യത്തിനു വേണ്ടീട്ടു തന്നെയാ ഞാൻ വാങ്ങിയത് കുറേ വർക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടീട്ടാണ് വാങ്ങിയത് പക്ഷേ ഞാനത്ര വിചാരിച്ചത്രയൊരു കംഫേർട്ടായി തോന്നുന്നില്ല അത് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചു ക്ലിയർ ക്ലാരിറ്റി വേണമായിരുന്നു പക്ഷെ ബ്ലർ എന്തോ ഒരു ബ്ലർ പോലെ ചിലപ്പോൾ അതിൻറെ വിദ്യ അങ്ങനെയായിരിക്കാം ഓരോ ടൈപ്പിലുള്ളതായിരിക്കാം പക്ഷേ എനിക്ക് ഇതല്ലായിരുന്നു വേണ്ടത് ഇത് ഞാൻ വർക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചത്ര ഇതായിട്ടില്ല എൻറെ സൈഡീന്നു ആ ലൈറ്റും ഇതൊക്കെ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ വരുന്ന ലൈറ്റെഫക്റ്റൊക്കെ ഭയങ്കര വ്യത്യാസമായിട്ട് ഭയങ്കര കുറവ് പോലെയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് വർക്കിൻറെ ആവശ്യമായതുകൊണ്ടത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ സ്വിച്ചിനൊക്കെ ചെറിയൊരു ഒരു കംഫെർട്ടില്ല സ്വിച്ചിൻറെ കീബോർഡിനൊക്കെ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ക്ലിയറും ഒരു ഫീൽ വരുന്നില്ല കംഫർട്ടായി തോന്നുന്നില്ല അത് എന്താന്നറിയില്ല അങ്ങനെ വന്ന് പോയത്